എൻ്റെ മൊബൈൽ ബില്ലിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടിയാണ് ഈ കോള് ചെയ്യുന്നത് മൊബൈൽ ബില്ലിൻ്റെ അടയ്ക്കാനുള്ള തുക എത്രരൂപയാണെന്ന് ഞാൻ മറന്നുപോയി അപ്പോൾ എനിക്ക് ആ പിന്നെ ആ തുക എത്ര രൂപയാണെന്നൊന്ന് അറിയണം എൻ്റെ മൊബൈൽ നമ്പറ് എട്ട് ഒന്ന് രണ്ട് ഒമ്പത് പൂജ്യം എട്ട് മൂന്ന് ആറ് ആറ് ഒമ്പത് എന്നാണ് അപ്പം ഈ മൊബൈൽ നമ്പറിലെ ബില്ല് എത്ര രൂപയാണ് എന്ന് ഇതിൻ്റെ തുക എത്ര രൂപയാണ് എന്ന് എനിക്ക് ഒന്ന് അറിയേണ്ടതുണ്ട് എന്നെ അതൊന്ന് അറിയിക്കണം അതിന് അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഫോൺ ചെയ്യുന്നത്